വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങളും ഒറിജിനലായിട്ട് നടക്കുന്ന കാര്യങ്ങളും തമ്മിലൊത്തിരി വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയാണല്ലോ ഏറ്റെടുക്കുന്നത് അപ്പോള് നമ്മളിപ്പൊരു ഒരു പറഞ്ഞ് കഴിഞ്ഞാലൊരു ബൈക്കാക്സിഡൻറ്റ് നടന്നു ബൈക്സി ആക്സിഡൻറ്റ് നടന്നുകഴിയുമ്പോള് സാധാരണ ആരും നോക്കാറില്ല ഓടിപ്പോവാ ചെയ്യ ഒളിച്ചോടിപ്പോവുകയാണു ചെയ്യുന്നെ അപ്പോള് അവടുന്ന് ആൾക്കാരെ രഷപ്പെടുത്തി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളേലോട്ട് നമ്മള് കടക്കുമ്പോള് നിങ്ങളാലോചിച്ചു നോക്കൂ അവരെക്കൊണ്ട് രഷപ്പെടുത്താന് വേണ്ടുന്നത് അപ്പോള് അതൊരു ന്യൂസായിട്ട് വന്നുകഴിയുമ്പോൾ പറയും ബൈക്ക് കാറുമായിട്ട് കൂട്ടി ഇടിച്ചിരുന്നു അല്ലെങ്കില് വേറൊരു വ്യക്തിയായിട്ട് കൂട്ടി ഇടിച്ചിരുന്നു ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതേത് രീതിയിലാണു നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നുള്ളതേ ഉള്ളു വേറെ പല വ്യാജ വാർത്തകളുമിങ്ങനെ വരുന്നുണ്ട് നമ്മളിപ്പെോള് ഒരു പിന്നെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം നമ്മുടെ ഒരു ഒരു ഒരു ലോറി തടിയുമായിപ്പോയ ലോറി കർണാടകയിലുമൊക്കെ കാര്വാറിലേക്ക് പോയ ലോറി വ രാത്രിയില് ബൈ ചാൻസ് ആ ഒരു മലയിടുക്കില് മലയിടിച്ചില് വെള്ളപ്പാച്ചിലുകൊണ്ട് കാരണം സ്ലൈഡിങ്ങുണ്ടായതു കൊണ്ട് കാരണമാ ലോറി ഈ അപകടത്തിൽ പെട്ടു അതാൾക്കാര് പറഞ്ഞ് പല രീതിയിലും പ പറയുന്നത് ഒന്നുമില്ലേ ആ ലോറി അവിടെത്തന്നെ കാണും നിന്ന സ്ഥലത്തുതന്നെ കാണും താഴ്ന്നുപോയിക്കാണും ചിലര് പറയുന്നത് അത് കടലിലോട്ട് മറിഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയിക്കാണും ചിലര് പറയുന്നത് ആ ഡ്രൈവറാ ഡ്രൈവർ ക്യാബിന്റകത്തുതന്നെ കാണും എന്നിട്ട് ഈ ലോറിയുടെ ലോറി തലകീഴായാണ് മറിഞ്ഞത് ആക്ച്വലി ഇതുവരെ ആരും പോയത് കണ്ടെത്തിയിട്ടില്ല ഏത് രീതിയിലാണ് അത് മറിഞ്ഞതെന്നോ ഏത് രീതിയിലാണ് അത് ആക്സിഡെൻറ്റുണ്ടായതെന്നോ അതൊന്നും ആരുങ്കണ്ടിട്ടില്ല ഇതിങ്ങനെ ഊഹാപോഹങ്ങള് പറഞ്ഞുണ്ടാക്കുന്നതാണ് ഊഹാപോഹങ്ങള് പറഞ്ഞുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ആക്ച്വലി നമ്മള്ക്ക് അതിലെ പുഴയിലെ അടിയൊഴുക്ക് ഭയങ്കരമായിട്ട് നടക്കുന്ന കാരണം ഒരു മനുഷ്യന് പോലും അതിന്റടിയിലോട്ടിറങ്ങി നോക്കാന് പറ്റാത്ത രീതി കണ്ടീഷനാണ് അപ്പോള് മാധ്യമങ്ങള് പ്രചരിപ്പിക്കുന്ന വാർത്തകളും ആഷൊലി അവടെന്താ നടക്കുന്ന കാര്യങ്ങളും തമ്മിലൊത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പോള് അത് നമ്മള് മനസിലാക്കേണ്ടുന്നത് നമുക്കെല്ലാർക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളു ഒരു അത് ആ വേ വേറെ ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വന്നുകഴിഞ്ഞാല് ആരുമറിയാതെ ചിന്തിക്കാത്ത രിതിയിലാണ് വെള്ളപ്പൊക്കമുണ്ടാവുന്നത് അപ്പോള് അറിയാത്ത രീതിയില് റോഡിനോട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളില്നിന്ന് വെള്ളമിങ്ങനെ ഒലിച്ചിറങ്ങി വരുക അല്ലെങ്കില് മലയിടിഞ്ഞ് വരുക അപ്പോള് അങ്ങനയൊക്കെയുള്ളിടത്ത് സംഭവിക്കുന്നത് ഏത് രീതി സംഭവിക്കുന്നോ ദൃക്സാക്ഷികളൊന്നുമില്ലാത്തതു കാരണം നമ്മളേത് രീതി പറഞ്ഞ് ഫലിപ്പിക്കുന്നുവോ അതങ്ങനെയേ അത് പോവുകയുളളു അപ്പിനിപ്പം ആഷൊലി എന്താ സംഭവിച്ചതെന്ന് നമുക്കാർക്കുമറിയത്തില്ല ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മള് ചിന്തിച്ച് ചിന്തിക്കുന്നതും മാധ്യമങ്ങള് പ്രചരിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യസങ്ങള് ഞാ പറഞ്ഞന്നുള്ളതേ ഉള്ളു അപ്പോള് ചെറിയതാണങ്കില് ഇപ്പോള്ത്തന്നെ ഒരു കേസ് മാധ്യമങ്ങൾക്കെന്നു വച്ചുകഴിഞ്ഞാല് എന്തെങ്കിലൊരു ചെറിയ ന്യൂസ് കിട്ടിയാല് മതി എന്തെല്ലാം മാധ്യമങ്ങള് കാരുണ്ടോ അവരെല്ലാം അതിന്റെ പുറകെ കൂടും ഒരു മൂന്നാല് ദിവസത്തേനത് തന്നെ ചർച്ചയാവും പിന്നെ വേറെ എന്തേലും ഇഷ്യൂ വേറെ എവിടേലും എന്തോ ഉണ്ടാവും അപ്പോള് അവര് പിന്നത് കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ വരും ഇപ്പോള്ത്തന്നെ ഒളിമ്പിക്സ്സ് നടക്കുന്നുണ്ട് ഒളിമ്പിക്സ്സ് നടക്കുന്നതിനെപ്പറ്റി ചർച്ച ഇല്ല ഇപ്പോള് രണ്ടു ദിവസംകൊണ്ട് ഉൽഘാടനം കഴിഞ്ഞു എന്നൊക്കെ ഒരു ചർച്ച അതൊക്കെ വന്നു അത് കഴിഞ്ഞിട്ടിപ്പോള് അവിടൊരു നമ്മുടെ ഇന്ത്യക്കൊരു വെങ്കല മെഡല് കിട്ടിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങള് നടക്കുന്ന കാര്യങ്ങളേപ്പറ്റി ആരും പറയാറില്ല അത് അത്രയൊക്കെയേ ഉള്ളു കാര്യങ്ങള്